സാധാരണക്കാരുടെ സംരക്ഷണങ്ങളിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്തുക പോലീസ് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ പോലീസിൻ്റെ കൈ ധാരാളമായി എത്തുന്നുണ്ട് കഞ്ചാവ് മയക്കുമരുന്ന് അതുപോലുള്ള മാരകമായ വസ്തുക്കൾ കള്ള അച്ചടി നോട്ടുകൾ എല്ലാം പോലീസിന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് അവരെ അതാത് സ്ഥാനത്ത് പോയി കറക്റ്റ് അതിലുള്ള ആൾക്കാരെ പിടിക്കുകയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും നല്ലവരായ ആൾക്കാരെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു കാറപകടം നടന്നാൽ തന്നെ അവിടെ ഒത്തുതീർപ്പാക്കാനായിട്ട് പോലീസ് വരുകയും നിയമപരമായ് അത് മുന്നോട്ടു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് എല്ലാ പോലീസും അവരുടേതായ ജോലികൾ കൃത്യമായി ചെയ്യുന്നതായിട്ടാണ് ഈ സമൂഹത്തിൽ കാണാൻ കഴിയുന്നത് ഓരോ സ്ഥലങ്ങളിലും ആയിട്ട് ഓരോ പോലീസ് സ്റ്റേഷനുകളുണ്ട് അവിടവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം എല്ലാ പോലീസും വന്ന് അന്വേഷിക്കാറുമുണ്ട് ഓരോ പ്രശ്നങ്ങളിലും ഈ പോലീസിൻ്റെ സ്ഥാനം വളരെയധികം ഇമ്പോർട്ടൻറ്റായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെത്തന്നെ പോലീസ് ആ കൃത്യസമയത്ത് തന്നെ ഇപ്പോളൊരാക്സിഡൻറ്റ് നടന്നാലും കൃത്യസമയത്ത് തന്നെ അവിടെ എത്തുന്നുണ്ട് ഒരു പ്രശ്നം നടന്നാലും ഒരു മോഷണം നടന്നാലും ഇപ്പോള് എന്തെങ്കിലും കഞ്ചാവ് വേട്ട നടന്നാലും അതുപോലെത്തന്നെ എല്ലാം കൃത്യസമയത്ത് തന്നെ പോലീസ് അവിടെ എത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഇപ്പോള് ഒരു കാര്യം ഏതെങ്കിലും വണ്ടി ഇടിക്കുകയാണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഇടിച്ച ആൾക്കും ഈ ഇടിച്ച വണ്ടിക്കും എല്ലാം നഷ്ടപരിഹാരം നിയമപരമായി നൽകുകയും ഇൻഷുറൻസ് ക്ലെമെയ്യുകയും ഇൻഷുറൻസ് ഇല്ലാത്തപക്ഷം അതിന് കേസെടുക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ലൈസൻസ് ഇല്ലാത്ത പക്ഷം അവരുടെ കേസിൽ നിന്ന് ചാർജെടുക്കുകയും ബാക്കിയു ഇടിച്ച വണ്ടിക്ക് പിഴ നൽകുകയും അവരാൽ തന്നെ അവരാൽ തന്നെ കഴിയുന്ന രീതിയിൽ പിഴ നൽകുകയും അവര് ചോദിക്കുന്ന അത്രത്തോളം ക്യാഷ് കൊടുക്കുകയും വാങ്ങിച്ചു കൊടുക്കുകയും പോലീസ് അവരുടെ കൃത്യമായ ഡ്യൂട്ടി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെത്തന്നെ ഇപ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്യാത്ത ചെയ്ത സ്ഥലത്ത് നിന്ന് കുറ്റകൃത്യം ചെയ്യാത്ത ഒരു ഒരു സാധാരണക്കാരനെ അബദ്ധവശാൽ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അപ്പോള് ഇതാ ഇതാണ് ഒരു കുറവായിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനായിട്ട് ഞാൻ പറയുന്ന ഒരു പോയിൻറ്റ് കാരണം ഇത് തെറ്റ് ചെയ്യാത്ത ഒരാളെ പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിക്കുന്നത് അത് നിയമപരമായ ഒരു കാര്യമല്ല അതുപോലെത്തന്നെ നിയമം സ്വീകരിക്കുകയും കറക്റ്റ് തെറ്റായ തെറ്റ് തെറ്റ് ചെയ്യുന്ന ആളെ കണ്ടുപിടിച്ച് അവർക്കുതന്നെ ശിക്ഷ നൽകുകയും ചെയ്യുക അതുപോലെത്തന്നെ പോലീസിൻ്റെ സൈബർ ടെക്നോളജീസ് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുത്തി

സൈബർ യൂസുകൾ നടത്തുന്ന കുട്ടികളും അതുപോലത്തന്നെ ഹാക്കേസും അതുപോലുള്ളവരെ നിയന്ത്രിച്ച് ഈ സൈബർ സെക്യൂരിറ്റിയെ ഡെവലപ്പെയ്ത് നല്ല സെക്യൂറായിട്ട് കൊണ്ടുപോവുക